പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിരുന്നു അപ്പോൾ വിവോയുടെ ഒരു സിക്സ് ജിബി റാമിൻ്റെ ഒരു വിവോ ടി വൺ ഫൈവ് ജി എന്ന് പറയുന്ന ഒരു സിക്സ് ജിബി റാമിൻ്റെ ഒരു മൊബൈൽ ഫോണാണ് ഞാൻ മേടിച്ചത് അത് ഫൈവ് തൗസൻഡ് എം എച്ച് ബാക്റ്ററി കപ്പാസിറ്റിയുണ്ട് ഗെയിമിംഗ് പ്രൊസസ്സറാണ് അതുകൊണ്ട് തന്നെ വളരെ വീഡിയോ ഗെയിം ഒരു കളിക്കുന്നൊരു ആളാണ് വളരെ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫോണാണ് ഗൈമിംഗ് പ്രൊസസ്സറായത് കൊണ്ട് തന്നെ പിന്നീട് ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ക്ലാരിറ്റി നല്ല മെഗാ പിക്സൽ ഉള്ളൊരു ബാക്ക് ക്യാമറയാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ സെൽഫി ക്യാമറയും അത്ര മോശമല്ലാത്ത രീതിയിലുള്ള ക്യാമറ തന്നെയാണ് വളരേയധികം ചാർജിങ് കപ്പാസിറ്റിയുണ്ട് ചാർജ്ജിങ്ങ് നിൽക്കുന്നും ഉണ്ട് ചാർജിങ്ങ് നിക്കുന്നു ഉണ്ട് കൊഴപ്പോന്നും പറയാനില്ല വിവോ ടി വൺ ഫൈവ് ജി എം മോഡലിൻ്റെയും സിക്സ് ജിബി റാമാണ് വളരെയധികം കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫോൺ തന്നെയാണ്